കൃഷി ഇടങ്ങളിൽ വൈദ്യുതി ഉപയോഗിക്കുന്നത് വളരെയധികം പ്രയോജനപ്പെടുന്നുണ്ട് ഗ്രാമങ്ങളുടെ പ്രശ്നങ്ങളിൽ കർഷകർ കർഷകർക്ക് ആദ്യത്തെ കാര്യം വൈദ്യുതി ഉള്ളതിനാൽ ജലസേചനം എളുപ്പമാക്കാൻ പറ്റും കൃഷിയിടങ്ങളിലെല്ലാം വെള്ളം എത്തിക്കാൻ കഴിയും വൈദ്യുതി ഉള്ളത് കൊണ്ട് ഫെൻസിങ്ങ് നടപ്പിലാക്കാം അതുകൊണ്ട് മൃഗങ്ങളുടെ ശല്യം കുറയ്ക്കാൻ കഴിയും വൈദ്യുതി എല്ലായിടത്തും ഉള്ളതിനാൽ രാത്രികാലങ്ങളിലും ഗ്രാമങ്ങളിലോട്ട് സുഗമമാ യി നടക്കാൻ സാധിക്കും വൈദ്യുതി ഉള്ളതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങൾക്കും രാത്രിയിലും പകലും പെട്ടെന്ന് തന്നെ പണികൾ ചെയ്തു തീർക്കാൻ സാധിക്കുന്നു വൈദ്യുതി ഉപയോഗിച്ചു തന്നെ മിഷ്നറികളും എല്ലാം വർക്ക് ചെയ്യുന്നത് കൊണ്ട് അത് കൃഷിയിടങ്ങളിലെ ജോലി എളുപ്പമായി തീരുന്നതുമാണ് കർഷകർക്ക് അത് വളരെ ഉപകാരപ്രദവുമാണ് വൈദ്യുതി എല്ലായിടങ്ങളിലും എത്തിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കും കർഷകർക്കും എല്ലാവർക്കും ഉപയോഗപ്രദമായ രീതിയിൽ അത് ഉപയോഗിക്കാൻ വൈദ്യുതി ഉപയോഗിക്കാൻ പറ്റുന്നതാണ്